ആരോഗ്യസംരക്ഷണ മേഖലയിലെല്ലാം വയനാട് ജില്ലയിലെ വൃദ്ധജനങ്ങള് നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് പറയുന്നത് എന്താണ് മക്കളിൽ നിന്ന് കിട്ടാത്ത എന്താണ് സ്നേഹവും ആ ഒരു പ്രായത്തിൽ അവർക്ക് ലഭിക്കേണ്ട കുറെ പരിഗണനയും കാര്യങ്ങളും ഒന്നും അവർക്ക് കിട്ടാത്ത അത് വയനാട് ജില്ലയില് മാത്രല്ല പല ജില്ലകളിലും അനുഭവിക്കുന്ന വയോജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഫീല് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അവരുടെ എന്താണ് വാർദ്ധക്യത്തില് വരുന്ന അസുഖങ്ങൾക്ക് വേണ്ടത്ര ചികിത്സയോ പരിചരണോ ഒക്കെ എന്താണ് ലഭിക്കാതെ വരുന്ന ഒരു അവസരം ഉണ്ട് ഇന്ന് കേരളസർക്കാരൊക്കെ ഒരു പാട് പദ്ധതികളും കാര്യങ്ങളുമൊക്കെ എന്താണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നടത്തി വരുന്നുണ്ട് അപ്പോൾ അത് എന്താണ് നല്ല രീതിയില് പോയി കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എന്താണ് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എന്താണ് എല്ലാ വയോജനങ്ങളും ഈ പ്രതിസന്ധികളൊക്കെ എന്താണ് നേരിടേണ്ടി വരുന്നുണ്ട്